എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വിഷയമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബീഫ് ആയിട്ടുള്ളൊരു വിഷയമാണ് നിങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല അത് നമ്മളുടെ ഒരു ബി ജെ പി ഭരണമായതു കൊണ്ടാണോ എന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനൊരു ബീഫ് നമ്മൾ കഴിക്കാൻ പാടില്ലയെന്നുള്ളതും അതിനെ കൊല്ലാൻ പാടില്ല അത് ഭയങ്കര ഒരു ഗോമാതാവാണെന്നും അങ്ങനെയൊക്കെ പറയുന്നതോണ്ട് അതിലെന്താ അതിലെന്തുകൊണ്ടാണ് അർത്ഥിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളിപ്പോൾ എല്ലാ ജീവികളും കഴിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജീവികളെയും കഴിക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒന്നിനെ മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയണതെന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ബീഫ് കഴിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അവർ എന്താ മുസ്ലിംസ് കാറ്റഗറിയിലായിരിക്കും ഹിന്ദുക്കൾ ബീഫ് കഴിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഗോമാതാവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ടോക്കും കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ മത സൗഹാർദ്ദമായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്നു പറയണെ അതിൽ തന്നെ ഭരണം കൊണ്ട് നമ്മൾ സപ്പറേറ്റായിട്ട് പോകണ പോലെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ ബീഫ് ബീഫ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ബി ജെ പി ഭരണം വന്നതോടു കൂടി അങ്ങനെയായതിൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കാനാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എന്താ കുറച്ച് സ് കുറച്ച് സമൂഹക്കാരത് കഴിക്കാൻ പാടില്ലയെന്നും കുറച്ചു പേരുകൾ അതു കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയുക അത് കഴിക്കരുത് ഇത് കഴിക്കരുതെന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഭരണം വന്നതുകൊണ്ട് നമ്മളാ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇതിനെ കൊല്ലാൻ പാടില്ലയെന്നു പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്നു എനിക്കു തോന്നിയിട്ടില്ല നമ്മൾ എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റണം കാരണം അടിച്ചേൽപ്പിക്കാൻ പാടില്ലയെന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്